ഞങ്ങൾ സുഹൃത്തുക്കളായിട്ട് കുറച്ച് പേര് തീരുമാനിച്ചിട്ടുണ്ടായിരിന്നു സൈക്ലിങ്ങിൽ പോവാൻ വേണ്ടിയിട്ട് പക്ഷേ ഞങ്ങൾക്ക് അത് സാധിച്ചില്ല യാത്ര പോവണം എന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു യാത്ര പോവണം എന്ന് ഭയങ്കര ആഗ്രഹമാണ് പിന്നേ പിന്നെ തിരക്കുള്ള സമയങ്ങളിൽ ആണെങ്കിൽ നമ്മൾ സമയം കണ്ടെത്തുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഒരുവിധം ജോലികളെല്ലാം വേഗം തീർത്ത് ബാക്കിയുള്ള സമയങ്ങളിൽ നമ്മൾ വീടുകളിൽ തന്നെ ഫാമിലിയായിട്ട് നിൽക്കാൻ തന്നെയാണ് നമ്മൾ നോക്കാറ് പരമാവധി സമയം കണ്ടെത്താൻ നമ്മൾ നോക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ദൂരെ യാത്രക്ക് തയ്യാറെടുത്തിട്ട് അതുപോലെ പറ്റാതെ വന്നിട്ടുണ്ട് നമുക്ക് പോകാൻ പറ്റാണ്ട് വന്നിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്ക് പോകണം എന്ന് തന്നെയാണ് ആഗ്രഹം